പക്ഷി നിരീക്ഷണ ക്ലബ്ബിലോ അല്ലെങ്കിൽ ഗ്രൂപ്പിലോ ഒന്നും ചേർന്നിട്ടില്ല എങ്കിലും രാവിലെ എഴുന്നേൽക്കുമ്പം പക്ഷികളുടെ ശബ്ദവും ഒക്കെ ഞാൻ നിരീക്ഷിക്കാറുണ്ട് മിറ്റത്തൂടെ നടന്നിട്ട് അപ്പം നല്ല ചെറിയ ചെറിയ കിളികളൊക്കെ കൂട്ടംകൂടി നടക്കുന്നതും അവ കൊത്തിക്കൊത്തി അങ്ങോട്ടും ഇങ്ങോട്ടും കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നതും അതൊക്കെ വളരെ താൽപ്പര്യത്തോടെ ഞാൻ നോക്കി നിൽക്കാറുണ്ട് പിന്നെ അവിടെ എങ്ങനെയാണ് അവരുടെ കുഞ്ഞുങ്ങളെ നോക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയാണ് ആഹാരം കൊണ്ടുക്കൊടുക്കുന്നത് അതൊക്കെ നമ്മൾ കാണാറുണ്ട് അത് വളരെ താൽപര്യവുമുണ്ട് വളരെ ടൈം പാസിംഗാണ് ഇൻട്രസ്റ്റുള്ളതുമാണ് പിന്നെ പക്ഷികൾ അവർ കുഞ്ഞുങ്ങളെ അവർ കൊത്തിത്തിന്നാൻ പ്രാപ്തിയാവുമ്പം അവരെ കൊത്തിവിടുന്നു അവരെക്കൊണ്ട് അവരുടെ ജോലി ചെയ്യിപ്പിക്കാനായിട്ട് അവർക്ക് ആഹാരം തന്നത്താനെ നേടിയെടുക്കാൻ ഒണ്ടാ തന്നത്താനെ ആഹാരം ശേഖരിക്കാനുള്ള കഴിവ് തള്ളപ്പക്ഷി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്

പിന്നെ നമ്മുടെ വീട്ടിൽ കോഴിയൊക്കെ വളർത്താറുണ്ട് അവർക്ക് തീറ്റ കൊടുക്കുന്നതൊക്കെ വളരെ ഇൻ്ററസ്റ്റുള്ള കാര്യമാണ് അത് നമുക്ക് കുറച്ച് വരുമാനമൊക്കെ കിട്ടുന്നതുകൊണ്ട് കോഴി വളർത്ത് താറാവ് വളർത്തൊക്കെയാണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് പക്ഷിയുടെ നിരീക്ഷണ ക്ലബ്ബിലൊന്നും അങ്ങനെ പോയിട്ടില്ലെങ്കിലും നമ്മൾ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള പക്ഷികളെയൊക്കെ നമ്മൾ നിരീക്ഷിക്കാറുണ്ട് അതിൽ നിന്ന് നമുക്ക് കുറച്ച് സന്തോഷം ലഭിക്കാറുണ്ട്